എൻ്റെ പ്രദേശമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഉത്സവം എന്നുവച്ചാൽ കുനിയിൽ കാവ് ശ്രീരാധ ശിവപാർവ്വതി ക്ഷേത്രമാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് അപ്പം മെയിൻ ആയിട്ടെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അതായത് പിന്നെ ഡേറ്റുകളിൽ ആണ് പിന്നെ ഉത്സവങ്ങൾ നടക്കുക ഉത്സവങ്ങളും നടക്കാർ നമുക്ക് മൂന്ന് ദിവസം നീണ്ടുനിൽക്കുന്ന അതായത് താലപ്പൊലി തിറ മഹോത്സവമാണ് നടക്കുക ആദ്യത്തെ ദിവസം താലപ്പൊലി കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ഉത്സവത്തിന് നടക്കാറ് അതിനുശേഷം താലപ്പൊലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനുശേഷം നമുക്ക് വെള്ളാട്ടാണ് ഇവിടത്തെ പ്രധാന ആചാരം അതെന്നുവച്ചിട്ടുണ്ടെങ്കിൽ വെള്ളാട്ട് വെള്ളാട്ട് കുറേ അതായത് കുറേ ശ്രീ തിരാഥൻ വെള്ളാട്ട് അങ്ങനെയുള്ള ഒരുപാട് കൂനിയിൽ ഭഗവതി പിന്നെ വെള്ളാട്ട് അങ്ങനത്തെ വെള്ളാട്ടുകളൊക്കെ കഴിഞ്ഞതിനുശേഷം നമുക്ക് പിറ്റേ ദിവസമാണ് അതിൻ്റെ തിറകളൊക്കെ ഈ വെള്ളാട്ട് കെട്ടിയാടുന്നതിൻ്റെ തിറകളൊക്കെ പിറ്റേ ദിവസമാണ് നടക്കുക അതുകഴിഞ്ഞ് പിന്നെ മൂന്നാം ദിവസം അതായത് ഈ തിറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മൂന്നാം ദിവസമാണ് നമുക്ക് ഇവിടെ പിന്നെ ആജ അതായത് ആ വർഷത്തെ ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിയുന്നത് പിന്നെ അതുപോലെ നമുക്ക് പിറ്റേ വർഷം ഏപ്രിൽ മെയ് മാസത്തില് പിന്നേയും ഉത്സവങ്ങൾ നടക്കും